മത്സ്യബന്ധനം അത് ഫിഷിംഗ് എന്നുള്ളത് ഒരു ഇന്ററസ്റ്റ് ആയിട്ട് തോന്നിയത് അതൊര് തൊഴിലായിട്ട് ചെയ്യുക എന്നതിനേക്കാളുപരിയായിട്ട് ഒര് സന്തോഷമുണ്ടല്ലോ നമ്മളൊര് ചൂണ്ടയൊക്കെ ഇടുമ്പോൾ അല്ലെങ്കില് വല കൊണ്ടിടുമ്പോളതില് മീൻ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ അതിനൊരു ത്രില്ലിംഗാണ് നമ്മള് ആ ആരാദ്യം മീനിനെ പിടിക്കുന്നു അപ്പോൾ ചെറുപ്പത്തിലെയൊക്കെ ചൂണ്ടയൊക്കെയായിട്ട് നമ്മള് പുറത്തേക്ക് പോകുമ്പോൾ ആരാ അതിന് ഇതിനൊക്കേറ്റവും പുറമെ മീൻ എന്നുള്ളത് അതൊരു ഫുഡ് ടേസ്റ്റി ഫുഡായത് കൊണ്ട് തന്നെയാണ് അതിനോടുള്ള ഇൻ്ററസ്റ്റ് കൂടുന്നത് സ്വന്തമായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് നമ്മള് നമ്മൾ അധ്വാനിച്ച നമ്മള് പിടിച്ച മീൻ നമ്മള് കഴിക്കുമ്പം ഉണ്ടാവുന്ന ടെയ്സ്റ്റ് എന്ന് പറയുന്നത് അതൊര് വ്യത്യസ്തമാണ് ആ ജോലിയേക്കാളുപരിയായിട്ട് അതൊര് ടൈം പാസിംഗ് ആയിട്ടാണ് ഞാനതിനെ കണ്ടത് ഒര് ഹോബിയായിട്ടൊക്കെ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായിട്ട് അതിൻ്റെ തൊഴില് ചെയ്യുന്നവരുണ്ട് മത്സ്യബന്ധനമെന്നുള്ള തൊഴില് ചെയ്യുന്നവര് ധാരാളം വ്യക്തികളുണ്ട് ആ കൊല്ലം നമ്മളുടെ ഏരിയൊക്കെ സംബന്ധിച്ച് ധാരാളം വ്യക്തികളുടെ ഉപജീവന മാർഗ്ഗം ആണ് കാരണം വേറൊര് ജോലിയില്ല തന്നെയല്ല പാരമ്പരാഗതമായിട്ടങ്ങനെ ചെയ്യുന്നു ഇത് മീൻ മീനെന്നും ആവശ്യമുള്ള ഒരു ഭക്ഷ്യ വസ്തുവാണല്ലോ ഇഷ്ടം പോലെ മത്സ്യ വിഭവങ്ങള് നമുക്ക് കടല് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ അതിനെ ആ പിടിക്കാന് എന്നുള്ളതും പിടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതുമൊക്കെ ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നത് അതിനൊര് പ്രധാനപ്പെട്ടൊര് കാരണമാണ് അത്യധികം റിസ്ക്കുള്ള ഒര് ജോലിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കടലിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് യാത്ര ചെയ്ത് കടലിൽ പോയി മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് മീനുണ്ടാകുമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടെയാണ് നമ്മള് വല ഇറക്കുന്നതൊക്കെ പക്ഷെ ഇവിടെ വലയില്ലെങ്കിൽ അല്ലെങ്കിൽ പകലന്തിയോളം നമ്മള് പണി ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒര് വലിയ ആ പ്രയാസമെന്ന് പറയുന്നത് മറ്റ് ജോലികൾക്കൊക്കെ ഒരു ഉറപ്പുണ്ട് ജോലി ചെയ്താൽ ശമ്പളം കിട്ടും എന്നുള്ള ഒരു പക്ഷേ ഇവിടെ മീൻ കിട്ടി അത് വിറ്റെങ്കിൽ മാത്രമാണ് അവർക്ക് അതിനുള്ള നേട്ടം ഉണ്ടാവും മറ്റ് ജോലികളുമായിട്ട് കംപെയർ ചെയ്യുമ്പം ഫിഷിംഗ് മത്സ്യബന്ധനമെന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് പിടിച്ചതുമാണ് അതോടൊപ്പം തന്നെ ചെയ്യാൻ ഒരു ഉറപ്പിൽ ഒരു പ്രോബബിലിറ്റി ഒരു സാധ്യത ഇത് കിട്ടുമോ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഈ ട്രോളിംഗ് പോലുള്ള സമയത്തൊക്കെ മത്സ്യബന്ധന നിരോധന സമയത്തൊക്കെ അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ മത്സ്യബന്ധനം ഒട്ടും സാഹചര്യം നടക്കാത്തൊരു സാഹചര്യങ്ങളിൽ തീർത്തും ആ കുടുംബമൊക്കെ പട്ടിണിയായിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അന്നന്നേരം കഴിയാനുള്ള ഒരു വക മാത്രമാണിതിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ നിന്നൊരു സമ്പാദ്യം ആയിട്ട് മാറ്റി വെക്കാനോ അല്ലെങ്കില് നാളേക്ക് എന്ന് കരുതി വെക്കാനൊന്നും മത്സ്യബന്ധനത്തിന് പോവുന്നവരെ കൊണ്ടൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല അതൊക്കെ വലിയ വലിയ ബോട്ടുകളിലൂടെയൊക്കെ പോകുന്നവർക്കും ഇത് സാധ്യം ആകത്തുള്ളു നിസ്സാരമൊരു വലയൊക്കെ നമ്മള് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിൽ പോകുന്ന വള്ളത്തിനെന്തെങ്കിലും കേടുകൾ പറ്റിയാലത് റിപ്പേറിംഗിന് വേണ്ടി ഒക്കെയായി കഴിയുമ്പം തന്നെ നമ്മളുടെ അധ്വാനത്തിൻ്റെ പകുതിയിൽ കൂടുതൽ പൈസയും ആ മേഖലയിൽ തന്നെ ചെലവഴിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത് മത്സ്യബന്ധനം അതൊര് തൊഴില് എന്നുള്ള നിലയിൽ അതൊര് സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് മീൻ കിട്ടുമ്പോൾ പക്ഷേ മറ്റ് തൊഴിലിനോട് കംപേറ് ചെയ്യുമ്പൊളൊത്തിരി അധികം ആ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണത്